ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം എന്താണന്ന് വെച്ചാൽ ഞാൻ എല്ലാം കൂടെ കൂട്ടീട്ട് ഒരു ഒരു കപ്പയായാലും പിന്നെ ചേമ്പ് പിന്നെ ചെ മത്തങ്ങാ ഇതെല്ലം കൂടി ഇട്ടിട്ട് ഒരു കൂട്ട് പുഴുക്കന്ന് പറഞ്ഞ പുഴുക്ക് ഉണ്ടാക്കും അത് നല്ല ടേസ്റ്റ് ആയിരിക്കും അത് തിന്നാൻ അത് ഇവിടെ എല്ലാവരും മക്കൾക്കായാലും എല്ലാവർക്കും നല്ല ഇഷ്ട്ടമാണ് ആ ഭക്ഷണം അതേപോലെ ബീഫായാലും തന്നെ നല്ല രുചിക്ക് തന്നെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അതുപോലെ പച്ചക്കറി ആയാലും എന്തുഭക്ഷണം ആയാലും ഞാൻ നല്ല ടേസ്റ്റോടുകൂടി മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കും മക്കൾക്ക് നല്ല ഇഷ്ട്ടമാണ് അതൊക്കെ കഴിക്കാൻ അതേപോലെ കപ്പ ആയാലും ഞാൻ നല്ലവണ്ണം ഉണ്ടാക്കും അതേപോലെ കാച്ചിൽ കാച്ചിലിൻറ്റെ സമയം ആണെങ്കിൽ നല്ലവണ്ണം കാച്ചിലൊക്കെ ഞാൻ ഞാൻ പുഴുക്കാക്കി മക്കൾക്ക് കൊടുക്കും അതേപോലെ ചേമ്പ് പിന്നെ ചേന ഇതെല്ലം നമ്മൾ അരിച്ച് പുഴുങ്ങീട്ട് നമ്മൾ കാന്താരി അരച്ചിട്ട് നല്ല രസമായിരിക്കും അത് തിന്നാൻ അതേപോലെ ചിക്കൻ കറി ആയാലും നല്ല ടേസ്റ്റോടുകൂടി ഞാൻ പാചകം ചെയ്തു കൊടുക്കാറുണ്ട് മക്കൾക്ക് എല്ലാർക്കും ഇഷ്ട്ടപ്പെട്ട ഒരു വിഭവമാണ് ഞാനുണ്ടാക്കി കൊടുക്കുന്നത് കൂടുതലും പലഹാരത്തെക്കാളും കൂടുതലും എനിക്കിഷ്ടം ഉണ്ടാക്കാൻ ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങളാണ്